ഇപ്പോൾ എന്നെ കൂടുതലായിട്ടും സ്വാധീനിച്ച പുസ്തകം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് ബഷീർ ഭായ് നമ്മുടെ തന്നെ നാട്ടിലുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ് അപ്പം അതാണ് ഞാൻ കൂടുതലായിട്ടും വായിച്ചുള്ള ഇപ്പം അവസാനമായിട്ടും വായിച്ചത് ആ ബുക്ക് തന്നെയാണ് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് അപ്പോൾ അതിൽ നല്ല രീതിയിലുള്ള പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് നല്ല രീതിയില് എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം ബഷീർ എന്ന് പറഞ്ഞൊരു വ്യക്തി അങ്ങനത്തെ രീതിലൊരു ബുക്ക് എഴുതുന്നുണ്ടെങ്കില് അതിൽ നല്ലൊരു എന്താ പറയുക കാര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം എന്തെന്നു വെച്ചു കഴിഞ്ഞാല് പുള്ളിനെ പോലുള്ളൊരു ഒരു മഹാവ്യക്തിക്ക് മാത്രമെ നല്ല രീതിയിലുള്ള ഒരു ബുക്കും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നമ്മുടെ കോഴിക്കോട്ടിനെന്നെ ഒരു എന്താ പറയുക തൂവൽ സ്പർശമാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ബേപ്പൂർ സുൽത്താന് എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ പറയുന്നത് അപ്പം പുള്ളിയാണ് നല്ല രീതിയിലുള്ള ഒരു കവിതയും കാര്യങ്ങളും പിന്നെ ഒരു ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുന്നത് പുള്ളിയാണ് അപ്പം നല്ല രീതിയില് പുള്ളി അത് എഴുതിയിട്ട് നമ്മളെ സ്വാധീനിപ്പിച്ചിട്ടുണ്ട്